ഹലോ ആ ഇതാരാ ഞാൻ ഞാനിവിടെ പാരപ്പില്ലാന്ന് എനിക്ക് കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ബ്രോക്കറല്ലേ സ്ഥലം ഓ ആ എനിക്ക് കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു അത് വിൽക്കാൻ വിൽക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഓ കാഞ്ഞങ്ങാട് ആ ആ റോഡ് സൈഡിൽ തന്നെ ടൗണിൻ്റെ അടുത്തു നിന്ന് നേരെ വരുന്നത് റോഡ് സൈഡിൽ തന്നെ എൻ എച്ച് എൻ എച്ച് റോഡിൽ നിന്ന് കുറച്ച് ഉള്ളിലോട്ട്

അവിടെ തെങ്ങുണ്ട് പിന്നെ കുറച്ച് ബിൽഡിങ്ങെല്ലാം ആയിട്ടുള്ളത് ആ ഓ ഷട്ടറ് ഒരഞ്ച് ഷട്ടറുണ്ട്

അയിമ്പത് സെന്റ് ആ തെങ്ങ് തെങ്ങെല്ലാമുണ്ട് തെങ്ങുണ്ട് തെങ്ങുണ്ട് വാഴ കൃഷിയുണ്ട് അതിൽ ഇടയിൽ

രണ്ട്

ആ ഉള്ളിലോട്ട് പോണം വിൽക്കാൻ വേണ്ടിയിട്ട് പൈസക്ക് വേണ്ടിയിട്ട് ആ ആ ആ അങ്ങനെയൊന്നും വേണ്ട

ഇവിടെ സെന്റിന് മൂന്ന് ലക്ഷം വരെയുണ്ട്

എനിക്ക് എനിക്കങ്ങനെ വേണ്ട എനിക്ക് കാശിനാവശ്യമുണ്ട് അപ്പം പൈസയായിട്ടുതന്നെ വേണം ആ അയി അപ്പം നിങ്ങൾ എപ്പം വരുന്നതെന്നെല്ലാം പറഞ്ഞാൽ അന്ന് ഞങ്ങൾ അവിടെ കാത്ത് നിൽക്കാം അയ്യോ ഓക്കെ